ഹലോ പറഞ്ഞോളു ആ അതെയതെ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ നിങ്ങൾക്കെന്തിനെപ്പറ്റിയാണ് അറിയേണ്ടത് നിങ്ങളെവിടേക്കായിരുന്നു പോവാനുദ്ദേശിക്കുന്നത് എന്ത് രീതിയിലുള്ള ഉത്സവം വരുന്നുണ്ട് നമുക്കിപ്പോൾ ഉത്സവത്തിൻറ്റെയൊരു സീസണാണ് ആ ഓക്കെ അത് എങ്ങനെത്തെ ഏത് ദൈവങ്ങളുടെ അങ്ങനെയെന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഫോക്കസ്സ് ചെയ്ത് വരുന്നയാണോ ആണാണോ ആ ഓക്കെ നമുക്കിപ്പോൾ അടുത്ത് വരുന്ന ഒരു അമ്പലം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സീതാ ദേവി ക്ഷേത്രമുണ്ട് പുൽപ്പള്ളി അവിടെയാണ് നമുക്ക് ഉത്സവം വരുന്നത് അവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈ മാസംതന്നെ ആരംഭിക്കും കുറച്ച് നീണ്ട് നിൽക്കുന്ന ഉത്സവമാണ് പിന്നെ താലപ്പൊലി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കുറേ ദിവസം നീണ്ട് നിൽക്കുന്ന ഉത്സവമാണ് പിന്നെ പൂജ സ്പെഷ്യൽ പൂജ കാര്യങ്ങളൊക്കെയുണ്ട് ആ ഓക്കെ ഓക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്ഥലത്തുനിന്ന് വരുന്ന താലപ്പൊലി അങ്ങനെത്തെ സംഭവങ്ങളൊക്കെയുണ്ട് നിങ്ങൾ എന്നാ ഡെയ്റ്റ് പറയാണെ നമുക്ക് ഇവിടെ റെഡിയാക്കാം നിങ്ങൾക്ക് ഫുഡ് ആൻറ്റ് അക്കൊമെഡേഷൻ ഇവിടെത്തന്നെ തയ്യാറാക്കണോ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഉണ്ടാവും ഉണ്ടാവും രാവിലെ നമുക്ക് അവിടെയുണ്ടാവും നൈറ്റ് നമ്മൾ സ്റ്റേ ആവശ്യം ഉണ്ടല്ലോ സ്റ്റേയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ നിങ്ങളെ കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും കാണിച്ച് തരുന്നതാണ് ആ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി കാണിച്ച് പറഞ്ഞ് തരുന്നതായിരിക്കും താലപ്പൊലിയുണ്ട് പട്ടണപ്രദക്ഷിണം പറയുന്ന സംഭവം ഉണ്ട് അതെല്ലാം ഉണ്ടാവുന്നതാണ് അവിടെ നമുക്ക് ഒരു അവിടെ എട്ട് ദീസം നീണ്ട് നിൽക്കുന്ന ഉത്സവം തന്നെയാണ് ഇത് മെയ്ന് ഉത്സവം വരുന്നത് ഏത് ദിവസമാണ് ആ ദിവസം പല സ്ഥലത്തും കുറേശ്ശെ പത്ത് പതിനഞ്ച് സ്ഥലത്തുനിന്ന് താലപ്പൊലിയിറങ്ങി മ്മ് പിന്നെ ടൗണ്കളിൽ കൂടിച്ചേർന്ന് എന്ന് പറയുന്ന അവിടെ അമ്പലത്തിൽ പോയി കൂടിച്ചേർന്ന് അമ്പലത്തിൽനിന്ന് ഒരു താലപ്പൊലിയുണ്ട് വലിയ താലപ്പൊലിയാണ് വിസ്മയ ദൃശ്യങ്ങളും ചെണ്ടക്കൊട്ടും അങ്ങനെത്തെയുള്ള കാര്യങ്ങളൊക്കെയുണ്ട് ആ ഓക്കെ ഓക്കെ സാറെന്നാണ് വരുന്നതെന്ന് ഡെയ്റ്റ് പറഞ്ഞാൽ മതി നമുക്ക് ഉത്സവത്തിന് ഡെയ്റ്റ്ൽ സാറെത്തിയാൽ മതി നമുക്ക് ഇവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യും റെഡിയാക്കാം ആ ആ ആ ഓക്കെ ഓക്കെ വന്നോളൂ സാറൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ ഓക്കെ താങ്ക് യൂ